ഹലോ ഇതാരാണ് നമ്മൾ ആ ആ ആ പറയാം അല്ല അനൂപല്ലേ അനൂപിൻ്റെ സൗണ്ട് കേട്ടിട്ട് അനൂപ് തന്നെയാണ് തോന്നുന്നു അല്ലേ അനൂപ് ആ ആ ആ ആ അനൂപേ നമുക്ക് വാഴ എന്തോ ഏത്തവാഴയായിരിക്കുമല്ലോ അല്ലെ ഏത്തവാഴയല്ലേ എടുത്തിരിക്കുന്നത് ആ മഞ്ചേരിക്കുളനാണോ ആ നമ്മുടെ ഷോപ്പിൽ നിന്നല്ലേ ആ ആ കുഴപ്പമില്ല ഇതടിസ്ഥാന വളമായിട്ട് എന്നാൾ നമുക്ക് ജൈവവളവും ഉണ്ട് രാസവളവും കൂടി രണ്ടും കൂടെ സമ്മിശ്രമായിട്ടുള്ളതാണ് കൃഷി ജൈവവളമാണ് കൂടുതലും ചെയ്യുന്ന നമുക്ക് അടിസ്ഥാനമുള്ളതായിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഇട്ടിട്ട് അങ്ങനെയാണെങ്കിൽ കീടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കും വാഴ വച്ചിട്ട് അങ്ങനെ വേപ്പിൻ പിണ്ണാക്ക് കുറേശ്ശെയെല്ലാം ഇട്ടേച്ചാൽ മതി എന്നാൽ ഒരു അരക്കിലോ വച്ച് വേപ്പിൻ പിണ്ണാക്ക് അറുപത് രൂപ നമ്മുടെ നല്ല പോപ്സൺ കമ്പനിയുടെയാണ് നല്ല സൂപ്പർ സാധനമാണ് എണ്ണ എടുക്കാത്ത സാധനം അപ്പോൾ അത് അതാവുമ്പോഴത്തേക്ക് നല്ല നല്ല ഓട്ടം ഉണ്ട് നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതലതാണ് അത് അതടിസ്ഥാന അമ്പത് അമ്പത് കിലോ ഈ താഴെ മതി അമ്പത് അരക്കിലോ വച്ച് ഇടണം എന്നാൽ ആ അരക്കിലോ വെച്ച് ആ വലിച്ചപ്പോലെ കെട്ടി വെക്കാം നല്ലപോലെ കാറ്റ് കയറിയാലും കുഴപ്പം ഒന്നും ഇല്ല കാറ്റ് കയറാതെ കെട്ടി വെക്കാം നമുക്ക് പിന്നീടായാലും ഇത് ഉപയോഗിക്കാം കീടനാശിനി പോലെയൊക്കെ ഉള്ള ഏതിന് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന അതിന് ശേഷം പിന്നെ എല്ലുപൊടി പിന്നെ രാസവളം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഫാക്ടംഫോസ് പിന്നെ ചാണകപ്പൊടിയുണ്ട് ചാണകപ്പൊടിയുണ്ട് നമ്മളെ കിലോയ്ക്ക് ആ പത്ത് രൂപ വച്ച് ആ എന്നാൽ നല്ല സുഖം നല്ല ഇത് ചാണകപ്പൊടിയാണ് ഇവിടെ അടുത്തു നിന്നുള്ള ആളിൻ്റെ തന്നെയാണ് നല്ലപോലെ ഉണങ്ങിയതുമാണ് അതാവുമ്പോഴത്തേക്ക് കുഴപ്പമില്ല അപ്പോൾ ഈ ചാണകപ്പൊടിയും കൂടെ ഇട്ടാവുമ്പോഴത്തേക്ക് ഇന്ന് പുഴുക്കളൊന്നും ഉണ്ടാകാതിരിക്കുകയും വേപ്പിൻ പിണ്ണാക്കുകൂടെ ഇടുന്നത് കൊണ്ട് ആ പിന്നെ ആ പിന്നെയെന്താണ് അറിയേണ്ടത് ഒന്ന് ഇരുപത്തെട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഓരോ മാസവും നമുക്ക് എന്തോ വളപ്രയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആറ് വളം നമ്മൾ ചെയ്യണം ആറ് ഏഴാമത് ഈ ചിലപ്പോൾ ആ അതുതന്നെ അതുതന്നെ നമുക്ക് എന്നാൽ ലാസ്റ്റ് ഒരു പൊട്ടാഷ്യം കൂടെ കുല വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നാൽ അതിൻ്റെ ആ ചുണ്ടുകൂടെയൊടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആവുമ്പോഴത്തേക്ക് എന്താണ് ചില പൊട്ടാഷ്യം കൂടിയിട്ട് ആണെങ്കിൽ ഇന്ന് കുലയ്ക്ക് നല്ല ദൃഢത വരും കായിക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മാർക്കറ്റിലാണെങ്കിലും നല്ല വില കിട്ടും നല്ല സാധനം കിട്ടും അത്രയാണ് ആ ശരി അതെ അതെ അതിനുണ്ട് നമ്മളെ എന്നൊക്കെ പറഞ്ഞ് നമുക്കെപ്പോഴും സാധനം കൊണ്ടുവന്ന് നമ്മുടെ കടയിലുണ്ട് നമുക്ക് അതിൽ വേണ്ട എല്ലാം ഉണ്ട് അത് ഒരു ദിവസം ഇറങ്ങിയാൽ മതി നമുക്ക് അതാവുമ്പോഴത്തേക്കും വളർന്നു കഴിഞ്ഞിട്ട് മതിയല്ലോ ഇപ്പം തൈയ്യല്ലേ തൈയ്യാവുന്നല്ലേ ഉള്ളൂ ഇത്തിരികൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പിണ്ടിപ്പുഴുവിൻ്റെ ആവുമ്പോൾ ഇത്തിരികൂടെ വളർന്ന് കഴിയുമ്പോഴത്തേക്കേ ആവുന്നുള്ളൂ അന്നേരത്തേക്കും നമുക്ക് ആ എടുത്ത് കഴിച്ചോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ താങ്ക് യൂ